മലയാള ഭാഷയുടെ പിതാവായിട്ട് നമ്മൾ കണക്കാക്കുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയാണ് അദ്ദേഹമാണ് മലയാള ഭാഷക്ക് ചിട്ട ഒരു ചിട്ടയും ഒക്കെ കൊണ്ടുവന്നത് പിന്നെ തമിഴിലിൽ നിന്ന് കുറേ വാക്കുകളും എല്ലാം മലയാള ഭാഷ കടം കൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ് വിദേശികളുടെ ആധിപത്യവും മലയാള ഭാഷയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ബ്രിട്ടീഷുകാർ കുറേ കാലം നമ്മുടെ ഇവിടെ കേരളം ഭരിച്ചിരുന്ന സമയത്തൊക്കെ അവരുടെ പല വാക്കുകളും നമ്മുടെ ഇവിടെ കയറി കൂടിയിട്ടുണ്ട് നമ്മുടെ ഭാഷയിൽ വന്നിട്ടുണ്ട് ആ അതുപോലെ തന്നെ ചൈനക്കാരുടെ ഭാ അവരുടെ വാക്കുകളും അതായത് ചീ എന്നാൽ ചീനിച്ചട്ടി ചീനവലയെന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ചൈന ഭാഷയിൽ നിന്ന് കടം കൊണ്ടതാണ് മലയാളത്തിലേയ്ക്ക് അതുപോലെ പോർച്ചുഗീസ് അങ്ങനെ നമ്മളെ ഇവിടെ ഭരിച്ചിരിക്കുന്ന കുറേ പേരെ കുറേ രാജ്യങ്ങളുടെ ഭാഷ തന്നെ നമുക്കിവിടെ കയറി കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പിന്നെ പല പല എഴുത്തുകാരിലൂടെയും ഒക്കെ അത് ചിട്ടയായ ഒരു എൽ ഒരു വൃത്തിയും വെടിപ്പും ഒക്കെ കൈ വന്ന് അത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്